കേരളത്തിൻ്റെ ആർട്ട്സ് ആൻഡ് ക്രാഫ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന തൊഴിലാളികളെ അല്ലെങ്കിൽ ആർട്ടിസെൻസിനെ പിന്തുണക്കുന്നതാണ് നല്ലത് അതായത് അവരുടെ സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങുന്നതിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഒരു കലയും പൈതൃകവും നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഇവിടെ പലതരം ഉത്സവ ആഘോഷങ്ങളാണ് അതായത് ഇവിടെ നടന്ന് പോകുന്ന ഒരു ഉത്സവാഘോഷങ്ങളാണ് അതിന് ഒരുപാട് പേരും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെ ഈ കഥകളും പാട്ടുകളും നൃത്തങ്ങളും ഇതെല്ലാം കേരളത്തിൻ്റെ കൾച്ചറിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതായത് നമ്മുടെ ഈ തിരുവാതിര ഒപ്പന മാർഗ്ഗം കളി ഈ വഞ്ചിപ്പാട്ട് പഴയ കഥകൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൾച്ചറിനെ ചൂണ്ടി കാണിക്കുന്നതാണ് അത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ഒരു തലമുറനെ നല്ലൊരു കൾച്ചറ് പറഞ്ഞ് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിൻ്റെ ഹാൻഡ്ക്രാഫ്റ്റ് ഒരുപാട് അറിയപ്പെടുന്ന ഒന്നാണ് അതായത് ഈ തടി കയർ ബാംബൂ അതെല്ലാം വച്ചിട്ട് നമ്മൾ ആർട്ട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അതും നമ്മുടെ കൾച്ചറിനെ വളർത്തുകയാണ് ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വളർത്തി എടുക്കുന്നതിന് ഗവൺമെൻ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കരകൗശല വികസന കോർപ്പറേഷൻ എന്നൊരു കോർപ്പറേഷൻ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയത് ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വളർത്തി എടുക്കാൻ അതുപോലെ തന്നെ നമ്മുടേ സംസ്കാരികം അതായത് നമ്മളുടെ ആർട്ട്സ് നൃത്തങ്ങൾ പാട്ട് ഇതിന് വേണ്ടിയിട്ട് ഓരോ സ്ഥാപനങ്ങൾ നമ്മളുടെ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ കലാമണ്ഡലം പോലെ മ്യൂസിക് കോളേജ് പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഗവൺമെൻറ്റ് നമ്മൾടെ കൾച്ചറ് വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് തൊട്ടുള്ള സംസ്ക്കാരം ഇപ്പോഴും കേരളം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് കരകൗശലങ്ങളിലും അതുപോലെ തന്നെ നൃത്തത്തിലും നമ്മുടെ പാട്ടുളിലും കഥകളിലൂടെയുമാണ്